ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രധാനമായിട്ടും വിവാഹത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നു വച്ചാൽ ആദ്യം ഈ ജാതകത്തിൻ്റെ കുറിപ്പ് പരസ്പരം കൈമാറും എന്നിട്ട് അത് ചേർച്ചയുണ്ടോയെന്ന് നോക്കലാണ് ആദ്യത്തെ

അതിൽ ചേർച്ചയുണ്ടെങ്കിൽ അടുത്ത എന്താണ് പരിപാടി എന്നു വച്ചാൽ പെണ്ണുകാണൽ ചടങ്ങാണ് അതായത് കല്യാണച്ചെക്കനും അവരുടെ ബന്ധുക്കാരും ചേർന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി പെണ്ണിനെ കാണുന്ന ചടങ്ങ് ആണ് ആദ്യത്തെ വിവാഹത്തിലെ ആദ്യത്തെ ആദ്യത്തെ ക്രമീകരണം കൂടിക്കാഴ്ച ഇതിൽ പെണ്ണുകാണൽ ചടങ്ങിന് പോയിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് വച്ചു കഴിഞ്ഞാൽ ഒരു തീയതി നിശ്ചയിച്ച് എന്താണ് പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീടു കാണാൻ പോകുന്നതാണ് രണ്ടാമത്തെ ക്രമീകരണം കൂടിക്കാഴ്ച രണ്ടാമത്തെ കൂടിക്കാഴ്ചയിലെ ചെക്കൻ്റെ വീട് കണ്ട് ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടുന്നു പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത ചുവട് എന്താണെന്നു വച്ചാൽ വിവാഹ നിശ്ചയത്തിൻ്റെ തീയതി ഉറപ്പാക്കുന്നതാണ് വിവാഹ നിശ്ചയത്തിൻ്റെ തീയതി മുൻകൂട്ടി നിശ്ചയിക്കുന്നു അത് നിശ്ചയിച്ചിട്ട് ഒരു ദിവസം വിവാഹ നിശ്ചയം നടത്തുന്നു വിവാഹ നിശ്ചയത്തിൽ പെണ്ണും ചെക്കനും പരസ്പരം മോതിരം കൈമാറുന്നു അതുപോലെ വിവാഹത്തിൻ്റെ തീയതി അന്ന് പറയുന്നു തീരുമാനിക്കുന്നു അതായത് വിവാഹത്തിൻ്റെ തീയതി തീരുമാനിക്കുന്നത് ഈ പെണ്ണിന്റേയും ചെക്കന്റേയും വീട്ടിലെ മുതിർന്നവരായ ആളുകളും ബന്ധുക്കളും ചേർന്നിട്ടായിരിക്കും അങ്ങനെ നിശ്ചിതമായ ഒരു തീയതി ഇപ്പോൾ രണ്ടു കൂട്ടർക്കും സമ്മതതോടെ ഒരു വിവാഹത്തീയതി നിശ്ചയിക്കുന്നു അങ്ങനെ വിവാഹം നടത്തുന്നു അതാണ് നമ്മുടെ ഗ്രാമത്തിലെ പ്രധാന വിവാഹ ക്രമീകരണങ്ങൾ